ഇന്ത്യൻ ആരോഗ്യസംരക്ഷണ സംവിധാനം നല്ലത് തന്നെയാണ് ആരോഗ്യസംരക്ഷണമെന്ന് പറഞ്ഞ രോഗികള് രോഗിയായിട്ടുള്ളവരുടെ രോഗം മാറ്റുക അവർക്കുള്ള മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുക്കുക അവരെ നല്ലപ്പോലെ നോക്കുക ഇങ്ങനെയൊക്കെയാണ് ആരോഗ്യസംരക്ഷണം ചെയ്യേണ്ടത് ഹോസ്പ്പിറ്റലിൽ ആണെങ്കിൽ തന്നെ ഒരു പേഷ്യൻറ്റ് ഒരു പേഷ്യൻറ്റന്നല്ല ഒരുപാട് പേഷ്യൻസുകളുണ്ട് ഓരോ പല പല അസുഖങ്ങളെത്തുടർന്നു ഡോക്ടറെ കാണിക്കാൻ വരുന്ന ഒരുപാട് പേഷ്യൻസുകളുണ്ട് ഇവര് വരുന്ന സമയത്ത് തന്നെ ടോക്കൺ ആദ്യം ടോക്കൺ എടുക്കണം പിന്നെ മരുന്നിന് ചീട്ടെടുക്കണം ചീട്ടെടുക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിലാണെങ്കില് ചെറിയ രണ്ടോ മൂന്നോ രൂപ കൊടുക്കണം എന്നാൽ പ്രൈവറ്റിലാണെങ്കിൽ നൂറ്റിയെമ്പതും ഇരുന്നൂറും രൂപ ഒക്കെ കൊടുക്കണം അങ്ങനെ നമ്മള് ആ ചീട്ടെടുത്ത് ഡോക്ടർ അടുത്ത് പോണം ഡോക്ടർ അടുത്ത് പോയി ഡോക്ട്രോട് ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്ന നമ്മളുടെ രോഗ വിവരങ്ങളെക്കുറിച്ച് പറയുന്നു അപ്പോൾ നല്ല സ്നേഹത്തോടെയും നല്ല സൗമ്യമായ ഭാഷയിലും വേണം ഡോക്ടറ് രോഗിയോട് പെരുമാറെണ്ടത് എന്ത് ഗുളികയാണെങ്കിലും എന്ത് മെഡിസിനാണെങ്കിലും അത് കഴിക്കുന്ന സമയവും അത് കഴിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഡോക്ടറ് ഒരു പേഷ്യൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ അവർ ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കാൻ പോകുന്ന സമയത്തും മരുന്ന് മേടിക്കുന്ന സമയത്തും അവിടെ ഫാർമസീല് ഉള്ളവര് കറക്റ്റായിട്ടുള്ള ഓർഡർ അനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം പിന്നേന്ന് പറഞ്ഞാല് ഓരോ മരുന്നുകള് അവിടെ ഉണ്ടാവലില്ല ഹോസ്പ്പിറ്റലില് ഉണ്ടാവലില്ല പ്രൈവ ഗവൺമെൻറ്റാണെങ്കിലും പ്രൈവറ്റാണെങ്കിലും അപ്പോൾ അവര് നമ്മളോട് പറയും പുറത്ത് നിന്ന് മേടിക്കണം ഇവിടെ ഇല്ല എന്ന് പറയും അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് തന്നെ മേടിക്കുക തന്നെ വേണം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരുപാട് നല്ല പിന്നീടെന്ന് പറഞ്ഞാല് ഹോസ്പ്പിലില് രോഗികളെ സംരക്ഷിക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ നല്ലപ്പോലെ രോഗികളെ നോക്കാനും വീൽ ചെയറിലാണെങ്കിലും സ്ട്രെച്ചറിലാണെങ്കിലും കിടക്ക് ഇരിക്കാൻ വയ്യാത്തവരാണെ സ്ട്രെച്ചറിലും നടക്കാൻ വയ്യാത്തവരെ ആണെങ്കില് ഇതി ഇതിലൊക്കെ ഇരുത്തീട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്